ഞങ്ങളുടെ വീട്ടിൽ കക്കൂസുണ്ട് അതിൻ്റെ പ്രയോജനം എന്താന്ന് വെച്ചാല് നമ്മുടെ കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് അവിടെത്തന്നെ നടക്കുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാന്യം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മള് ഇതിനെല്ലാം വേണ്ടി മറ്റാരെയെങ്കിലും സമീപിക്കേണ്ടുന്ന ഒരാവശ്യം വന്നേനെ ഇപ്പോൾ ആ ഒരവസ്ഥ ഇല്ല നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ എല്ലാവരുടെയും വീട്ടിൽ കക്കൂസുണ്ട് ഒരു വിധം നീറ്റായി തന്നെ നമ്മള് നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നതും ഇതുകൊണ്ടു തന്നെ എല്ലാവരുടെയും വീട്ടിലിതുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഇല്ലാതിരിക്കുന്നൊരവസ്ഥയെന്നു പറയുന്നത് ഈ ആദിവാസി സമൂഹത്തിലും മറ്റും കുഞ്ഞുങ്ങൾക്ക് രോഗവും മറ്റും വർദ്ധിച്ചു വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കക്കൂസില്ലാത്തതിനാലും കക്ക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്ന പ്രശ്നം കൊണ്ടും മറ്റുമാണ് അതിനാൽ അത് ഒഴിവാക്കുന്നതിനുവേണ്ടി തന്നെ പൂർണ്ണമായും സമ്പൂർണ്ണ സാക്ഷരത വഹിക്കുക എന്ന പോലെ തന്നെ ഈ കാര്യത്തിലും സർക്കാറിൻ്റെ പഞ്ചായത്ത് തല ഇടപെടലുകൾ ഉണ്ടായതുകൊണ്ട് താഴേക്കിടയിലുള്ള ആളുകൾക്കിടയിൽ തന്നെ ഇത് പൂർണ്ണമായും ഉണ്ടാക്കിക്കൊടുക്കുന്ന പദ്ധതികൾ നമ്മളുടെ പഞ്ചായത്ത് വഴി മുന്നോട്ടുവച്ചിരുന്നു അതുകൊണ്ടുതന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ പൂർണ്ണത വരിക്കാൻ കേരള സർക്കാരിന് സാധിച്ചിട്ടുണ്ട് നമ്മൾ ഇത് ഇല്ലാതിരിക്കുമ്പോഴാണതിൻ്റെ ബുദ്ധിമുട്ടെന്താണെന്നറിയുന്നത് നമ്മുടെ വീടുകളിൽ മാത്രമല്ല പൊതുനിരത്തുകളിലും പൊതുസ്ഥലങ്ങളിലും എല്ലാം തന്നെ ഇപ്പോൾ കക്കൂസുണ്ട് എങ്കിൽ മാത്രമേ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് മറ്റാരെയും തന്നെ സമീപിക്കാതെ നമ്മൾക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുവാൻ സാധിക്കുകയുള്ളൂ അതിനു നമ്മളെല്ലാവരും ഇത് പൂർണ്ണമായും ഉപയോഗിക്കണം എന്നതാണ് ഇതിൻ്റെ ആവശ്യകത ഇത് നിലനിർത്തി കൊണ്ടുപോവുക